ആ ഞങ്ങളുടെ പ്രദേശത്തിങ്ങനെ കുറെ അമ്പലങ്ങളും കോട്ടകളൊക്കെയുണ്ട് ടിപ്പുവിൻ്റെ കോട്ട ഹൈദരാലിയുടെ കോട്ടയെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കോട്ടയുണ്ട് പ്രശസ്തമായിട്ടുള്ളൊരു കോട്ടയാണ് അവിടെ പോയിട്ടുണ്ട് ഭയങ്കര മനോഹരായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹനുമാൻ കോവിൽ ഉണ്ട് എന്താണ് കല്ല് വലിയ വലിയ കല്ലുകൾ കൊണ്ട് കൽകരിങ്കല്ല് കൊണ്ട് പണിത കോട്ടയാണ് അത്രയും ബലം ആയിട്ടുള്ള കോട്ടയാണ് പൂക്കളും ഭയങ്കര ഭയങ്കര തന്നെ ഭയങ്കര പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ആ കോട്ടയിൽ ഒരു ഒരു പാട് ആളുകൾ ആൾക്കാര് വന്നിരിക്കാറുണ്ട് പിന്നെ അമ്പലങ്ങളെക്കുറിച്ച് പറയുവാണെൽ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ നമുക്കൊരു അമ്പലം ഉണ്ട് അവിടെ എന്താണ് ഒരു ശിവൻ ഭഗവതിനേയും ചേറിലേക്ക് ചവിട്ടി താഴ്ത്തി എന്നാണ് അവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ദേവി മണ്ണിനടിലായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് പകലെ അവിടുത്തെ ദേവിനെ കാണാൻ പറ്റുവൊള്ളു പിന്നെ ഇവിടെ പാറപ്പുറത്ത് എന്താണൊരു ലോറി കല്ലായത് ഒരു പ്രതീകമുണ്ട് അപ്പ ഇതും ഈ ദേവീയുടെ ഒരു ഭാഗമായിട്ട് നടന്നതാണന്നൊക്കെ പറയുന്നു വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ഇവിടെ ഇവിടുത്തെ അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ട്